ഹലോ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ആയി അപ്പം അതൊന്ന് റിന്യൂവല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ സൗദിയിൽ ആയിരുന്നു അപ്പം എനിക്ക് അത് എങ്ങനെ ചെയ്യേണ്ടത് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെ കുറച്ചു കാര്യങ്ങളൊക്കൊ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കേ ഇത് എത്ര നാൾ കൊണ്ടുള്ള പ്രോസസ് ആണ് കുറേ നാൾ എടുക്കുമോ എനിക്ക് ഇനി ഇപ്പം ഒരു പുറത്തേക്ക് പോവാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഒന്ന് സ്പീഡ് ആക്കി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കേ ഓക്കേ പിന്നെ എന്തൊക്കെ പ്രൂഫ് ആയിരിക്കും ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് അറിയുമോ എനിക്ക് അതിനെ കുറിച്ചു അങ്ങനെ വലിയ പിടുത്തം ഇല്ല എനിക്ക് പെട്ടെന്ന് തന്നെ പോവേണ്ട ഒരു കാര്യങ്ങളാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരു ഒന്നര മാസത്തിനുള്ളിൽ പോവേണ്ടതാണ് അപ്പം അതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒന്ന് റെഡി ആക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് ഞാൻ ഇതാക്കേണ്ടത് ഓക്കേ എസ് എൽ സി ബുക്കോ ആ എസ് എൽ സി ബുക്ക് ഉണ്ട് അതിൻ്റെ ഇത് ഉണ്ട് ആധാറ് ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാർ താങ്ക് യു